ഇപ്പോൾ ഞാൻ എൻറെ തോട്ടത്തിൽ ഇപ്പോൾ എന്താപറയുക ക്യാഷ് കൊടുത്ത് പുറത്തു നിന്ന് രാസവളങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെ വാങ്ങിയിട്ടിട്ടില്ല ഞാൻ സാധാരണ ചെയ്യുന്നത് എന്താണെന്നുവെച്ചു കഴിഞ്ഞാൽ പശൂൻറെ ചാണകം അങ്ങനത്തെ ഇതൊക്കെയാണ് കൂടുതലായിട്ടും വളമായിട്ട് യൂസ് ചെയ്തു കൊണ്ടിരുന്നത് അപ്പോൾ ഞാനിപ്പം എന്തെങ്കിലും നടുകയാണെങ്കിൽ തന്നെ വീട്ടിൽ പശുവിനെ വളർത്തുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് പുല്ലരിഞ്ഞു കൊടുക്കുന്നതും ഇപ്പം എന്തപറയുക പുല്ല് ഇപ്പോൾ അത് അത് അരിഞ്ഞു കൊടുത്ത് അത് കഴിച്ചിട്ട് വരുന്ന അതിൻറെ വെയിസ്റ്റുകൾ നമ്മുടെ ചാണകം അതെടുത്തിട്ട് അതിൻറ്റെ ചുവട്ടിൽ ഇട്ടു കൊടുത്ത് മെയിനായിട്ട് അത് തന്നെയാണ് വളമായിട്ടു യൂസ് ചെയ്യുന്നത് പിന്നെ ഈ മരത്തിൻറെയൊക്കെ ചില്ലയിൽ കൊമ്പൊക്കെ ചാടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ചപ്പും കാര്യങ്ങളൊക്കെ ചെടികളുടെ ചുവട്ടിൽ ഇട്ടുകൊടുത്ത് അതൊക്കെ എന്താപറയുക നല്ലൊരു വളമായിട്ട് തന്നെയാണ് അതിൻ്റെ ഇലയൊക്കെ അവിടെകിടന്ന് ചീഞ്ഞ് നല്ലൊരു വളമായി മാറുന്നതാണ് എൻറെ മെയിനായിട്ടുള്ള ഒരു ചിന്ത അത് പൊതുവെ എല്ലാവരും അങ്ങനെയെന്നാണ് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുള്ളതും പിന്നെ മണ്ണിര കമ്പോസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ടും അങ്ങനെ ചെടീൻറ്റെ ചുവട്ടിലൊക്കെ ഇടുന്നതോടു കൂടി അതായത് ജൈവ വൈവിധ്യം നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടെന്നു തന്നെയാണ് എൻറെ ഒരു തോന്നൽ